സർക്കാർ സ്കൂളിൽ അവർക്ക് വളരെ ചുരുക്കത്തിൽ പഠിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ പ്രൈവറ്റ് സ്കൂളിൽ സ്വകാര്യ സ്കൂളിൽ ആണെങ്കിൽ അവർക്ക് വളരെ പാട് വളരെ കഠിനമായും പഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് ഇംഗ്ലീഷിൽ കമ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് അവർ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര വലിയ സംസാരം ഒന്നും കിട്ടത്തില്ല എന്നാല് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നത് മൊത്തവും കാണാപ്പാഠം പഠിക്കണം അതതുപോലെ വരും എക്സാമിനേഷൻ എഴുതണം സർക്കാർ സ്കൂളിൽ നേരെ തിരിച്ചാണത് മനസ്സിലാക്കി പഠിക്കണം മനസ്സിലാക്കി പഠിച്ചതുകൊണ്ടുതന്നെ വേറൊരു ഭാഗത്തുനിന്നായിരിക്കും ചിലപ്പോള് ചോദ്യങ്ങൾ വരാൻ സാധ്യത അതുതന്നെ പ്രൈവറ്റ് സ്കൂളിൽ തൊണ്ണൂറ്റൊന്പത് ശതമാനം അല്ല നൂറ് സർക്കാർ സ്കൂൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം വിജയം കൈവരിക്കുന്നത് സർക്കാർ സ്കൂളും പ്രൈവറ്റ് സ്കൂളും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ രണ്ട് സ്കൂളിലും പഠിക്കേണ്ടത് അനിവാര്യമാണ് കാരണം രണ്ട് സ്കൂളിലും പഠിപ്പിക്കുന്ന വ്യത്യസ്ത രൂപത്തിലാണ് പ്രൈവറ്റ് സ്കൂളിൽ മലയാള മീഡിയം ഇല്ല ഇംഗ്ലീഷ് മീഡിയമാണ് മൊത്തവും അപ്പം അവർക്ക് ടീച്ചർമാര് സംസാരിക്കുന്നതും ഇംഗ്ലീഷിലായിരിക്കും എന്നാൽ സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് സബ്ജെക്ട് എടുക്കുമ്പോള് പോലും ടീച്ചർ മലയാളത്തിലാണ് സംസാരിച്ചാറ് സംസാരിക്കാറ് അപ്പോള് ടീച്ചർ മലയാളത്തില് അവർക്കത് മീനിങ്സ് വച്ചുക്കൊടുക്കാറാണ് പതിവ് പക്ഷേ ഇംഗ്ലീഷിൽ ഒരു ടീച്ചർ വന്ന് പത്തു മിനുട്ട് പതിനഞ്ച് മിനുട്ട് ക്ലാസ് എടുക്കുമ്പോള് തന്നെ അവിടത്തെ പിള്ളേർക്ക് നല്ലൊരു രീതിക്കവർക്ക് ആ ഒരു പോർഷൻ അവർക്ക് മനസ്സിലായി കാണും കാരണം അവർക്ക് ഇംഗ്ലീഷ് അവര് ഒന്നാം ക്ലാസ് തൊട്ടാണ് എൽ കെ ജി തൊട്ടാണ് ഇംഗ്ലീഷ് കേട്ട് കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും ടെസ്റ്റിലുള്ളത് അപ്പോള് സർക്കാർ സ്കൂളിൽ നേരെ തിരിച്ചാണ് നമ്മള് പഠിക്കുന്നത് വളരെ സ്ലോ ആയിരിക്കും ടീച്ചർമാരും പഠിപ്പിക്കുന്നതും വളരെ സ്ലോവിൽ ആയിരിക്കും അപ്പോള് പരീക്ഷാസമയത്ത് ഓട്ടിച്ചെടുക്കുന്നതാണ് സർക്കാർ സ്കൂളിലെ പതിവ് എന്നാൽ പ്രൈവറ്റ് സ്കൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവര് ഫസ്റ്റെ പോർഷൻ തീർത്തിട്ട് പിന്നെ റിവിഷൻ പിന്നെ അങ്ങനൊരു അഞ്ചാറ് റിവിഷനങ്ങ് പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് പ്രൈവറ്റ് സ്കൂളിൽ കാണുന്നത് അപ്പോള് നോക്കണെ രണ്ട് സ്കൂളിലും പഠിപ്പിക്കുക അനിവാര്യമാണ് കാരണം രണ്ട് സ്കൂളിലും പഠിപ്പിക്കൽ വ്യത്യസ്ത രീതിയിലാണ് പഠിപ്പിക്കല് അപ്പോള് രണ്ടു സ്കൂളിലും പഠിക്കുന്നത് അനിവാര്യം ഒക്കെ ആണ് സർക്കാർ സ്കൂളും പ്രൈവറ്റ് സ്കൂളും സർക്കാർ സ്കൂളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്